ഇടുക്കി ജില്ലയിലെ പാകത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ചൂട് കാലാവസ്ഥയാണ് മഴക്കാലം കഴിഞ്ഞുള്ള വേനൽ കാലത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ പ്രധാനമായിട്ടും മൂന്ന് കാലാവസ്ഥ ആണുള്ളത് മഴക്കാലം വേനൽക്കാലം ശീതകാലം അല്ലെങ്കിൽ ഒരു അർധ മഞ്ഞുകാലം ഈ സമയത്ത് വേനൽക്കാലം ആണ് ഈ സമയത്ത് കൃഷിക്ക് വെള്ളം തികയാതെ വരികയും അല്ലെങ്കിൽ മഴ ലഭിക്കാതെ വരികയും ചെയ്യുന്നൊരു സാഹചര്യമാണ് എല്ലാ വീടുകളിലും വെള്ളവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ട് കിണറുകൾ ഉണ്ട് കുളങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ഓലികൾ ഉണ്ട് തടാകങ്ങൾ ഉണ്ട് ഇതൊക്കെയുണ്ട് എങ്കിൽ പോലും ഈ സമയങ്ങളിൽ എല്ലായിടത്തും വെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ് അതുപോലെ തന്നെ വേനൽക്കാലം എന്ന് പറയുന്നത് എല്ലാവരെയും മൃഗങ്ങളെയും പക്ഷികളെയും മനുഷ്യരെയും കൃഷിയും ഒരേപോലെ ബാധിക്കുന്ന ഒരു ഘടകമാണ് അതേപോലെ തന്നെ വേനൽക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരാൻ പോകുന്നത് മഴക്കാലമാണ് ഈ മാസം മാർച്ച് മാസമാണ് മെയ് ജൂൺ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ഇവിടെ അല്ലെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ മഴക്കാലമാണ് വരാൻ പോകുന്നത് ഇപ്പോൾ പ്രകൃതിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും വറ്റി വരണ്ട് ഉണങ്ങി കിടക്കുകയാണ് പുൽമേടുകളും കുന്നുകളും അതുപോലുള്ള അരുവികളും തോടുകളും തടാകങ്ങളും കുളങ്ങളും ഓരികളും എല്ലാം വറ്റി നിൽക്കുന്ന സാഹചര്യമാണിപ്പോൾ ഉള്ളത് ഇതിൽ നിന്നൊരു മോക്ഷം ലഭിക്കണം എങ്കിൽ മഴക്കാലം വന്നെത്തണം അതേപോലെ തന്നെ ഈ സമയത്ത് നമ്മുടെ കൃഷി ഇവിടുത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് കൃഷിയാണ് ടൗണേരിയ അല്ല ഇതൊരു ഗ്രാമപ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾക്ക് കൃഷി ചെയ്യൻ ആവശ്യമായിട്ടുള്ള ജലത്തിൻ്റെ സ്രോതസ്സുകളും സോഴ്സ്ക അല്ലെങ്കിൽ അതേപോലെയുള്ള ആ അതിന്റെ ഉറവിടങ്ങളും വളരെ കുറവാണ് ഈയൊരു സാഹചര്യത്തിൽ മഴയെ ആണ് ജനങ്ങൾ കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് അമിതമായി മഴ പെയ്താൽ നമുക്ക് അറിയാം കഴിഞ്ഞ ആ വർഷങ്ങളിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ഇരുപത് കാലഘട്ടങ്ങളിൽ കേരളത്തിലും ഇടുക്കിയിലും ഇടുക്കിയിലെ പല പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ എല്ലാം ജലത്തിൻ്റെ ലഭ്യത അതുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മഴ വളരെ ശക്തമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ പ്രളയം സംഭവിച്ചു ആ സമയത്ത് ജലത്തിൻ്റെ ഉപയോഗം വളരെ കൂടുതലായിരുന്നു അതുപോലെ തന്നെ വേനൽക്കാലം മഴ ശീതകാലം വസന്തം ഈ പറയുന്ന കാലാവസ്ഥകൾ എല്ലാം തന്നെ ജനങ്ങളെ വളരെ അധികം അനുകൂലമായും പ്രതികൂലമായും ബാധിക്കുന്ന ഒരു ഘട്ടമാണ് അതുപോലെ തന്നെ ഓരോ കാലാവസ്ഥയിലും മഴ ലഭിക്കേണ്ട സമയം ആണെങ്കിൽ കൃത്യമായ മഴ ലഭിച്ചില്ലെങ്കിൽ കർഷകർക്കും ജനങ്ങൾക്കും അതുപോലുള്ള ജീവജാലങ്ങൾക്കും പക്ഷികൾക്കും മൃഗാധികൾക്കും അതുപോലുള്ള സസ്യങ്ങൾക്ക് എല്ലാം അത് വളരെ അധികം ബാധകമായി തീരുന്നൊരു പ്രവണതയാണ് കണ്ടു വരുന്നത് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം അതുപോലുള്ള ജനിതക വൈവിധ്യങ്ങൾ അല്ലെങ്കിൽ വൈവിധ്യങ്ങളുടെ ഒരു സംരക്ഷണം ഉറപ്പാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല കൃത്യമായ അളവിലും അല്ലേൽ കൃത്യമായ സമയത്തും കൃത്യമായ കാലഘട്ടങ്ങളിലും മഴ ലഭിക്കേണ്ട സമയത്തും മഴ ലഭിക്കയും അല്ലെങ്കിൽ വെയിൽ ലഭിക്കേണ്ട സമയത്ത് വെയിൽ ലഭിക്കാതിരിക്കുകയും അല്ലെങ്കിൽ തണുപ്പ് വേണ്ട സമയത്ത് തണുപ്പില്ലാതിരിക്കുകയും ചെയ്യുന്ന കാലാവസ്ഥയിൽ ജനങ്ങൾ വളരെ അധികം ബുദ്ധിമുട്ടിയാണ് കഴിയുന്നത് കാരണം ഇതെല്ലാം ജനങ്ങളുടെയും അതുപോലുള്ള പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവജാലങ്ങളുടെയും സസ്യങ്ങളുടെ നിലനിൽപ്പിന് ഇത് ബാധകമായി തീരുന്ന ഒരു ഘടകമാണ് പിന്നെ അതുപോലെ തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന ഇടുക്കി പോലുള്ള ജില്ലകളിലെ കാലാവസ്ഥ വ്യത്യാസങ്ങൾ ജനങ്ങൾക്ക് വളരെ അധികം ജനങ്ങൾക്ക് വളരെ അധികം മാറ്റങ്ങൾ കൊണ്ട് വരികയും അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതത്തെ അത് വളരെ അധികം ബാധിക്കുകയും ചെയ്യുന്ന ഒരു ഘടകമായി എത്തിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കുറച്ച് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഏഴ് അല്ലെങ്കിൽ ആറ് ഏഴ് വർഷങ്ങളായിട്ട് ദൈവത്തിൻ്റെ ഒരു കരണയിലൂടെ ലഭിച്ച അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്ര ഇത്ര മാസങ്ങളിൽ മഴയാണെങ്കിൽ ഇത്ര ഇത്ര മാസങ്ങളിൽ വെയിലായിരിക്കും അല്ലെങ്കിൽ തണുപ്പായിരിക്കും എന്ന് ഒന്ന് പ്രവചിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു ജൂൺ മാസം എത്തിക്കഴിഞ്ഞാൽ മഴക്കാലമെന്നും അല്ലെങ്കിൽ ഫെബ്രുവരി മാർച്ച് ജെനുവരി മാസങ്ങളിൽ വേനൽ കാലമെന്ന് നിശ്ചയിക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതിൽ നിന്നെല്ലാം മാറ്റങ്ങൾ വന്നിരിക്കയാണ് അതേപോലെ തന്നെ കൃത്യമായിട്ട് നമുക്ക് ലഭിക്കേണ്ട മഴ അതുപോലുള്ള കാലാവസ്ഥ വ്യത്യാസങ്ങൾ വ്യതിയാനങ്ങൾ ഇതെല്ലാം കർഷകരെയും നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ കർഷകരുടെ നമ്മൾ ഇടുക്കി ജില്ലയിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ കർഷകരുടെ വിളവ് അതുപോലെ തന്നെ അവരുടെ ഉൽപ്പന്നത്തിൻ്റെ ഉൽപാദനക്ഷമത അതേപോലെ തന്നെ കാർഷിക മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ അപ്പം ഇതെല്ലാം എല്ലാം ഈ പറയുന്ന ജനങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒരു ഘടകമായിട്ട് മാറിയിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം കൃത്യമായ സമയത്തും കൃത്യമായ അളവിലും കൃത്യമായ തോതിലും മഴ ലഭിച്ചില്ല അല്ലെങ്കിൽ വേനൽ ലഭിച്ചില്ല എങ്കിൽ ഈ പറയുന്ന കർഷകർക്ക് അത് വളരെ അധികം ബാധകമായിതീരുന്ന ഒരു ഘടകമാണെന്ന് നമുക്ക് വേണ്ടി പറയാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമുക്ക് അറിയാം അമിതമായിട്ട് ഇപ്പം നമുക്ക് ഒരു ഒരു ദി ഇത്ര മാസത്തിൽ ഇത്ര സമയം മഴ ലഭിച്ചാൽ മതി പക്ഷേ അമിതമായിട്ട് മഴ ലഭിച്ചാൽ എന്താണ് കുഴപ്പം ഈ പറയുന്ന കൃഷിയും മറ്റുള്ള സംവിധാനങ്ങൾ എല്ലാം തകർന്ന് പോകും നമുക്ക് അറിയാം ഉരുൾപ്പട്ടൽ വെള്ളപ്പൊക്കം അതേപോലുള്ള ഭൂകമ്പം ഭൂമി കുലുക്കും അതേപോലെ വരൾച്ച അതേപോലെ തന്നെ കൃഷിനാശം മാ കൃഷികൾ തകർന്ന് പോവുക ചീഞ്ഞ് പോവുക അല്ലെങ്കിൽ ഈ പറയുന്ന കർഷകരുടെ വിളകൾ നശിച്ച് പോകുക അവർക്ക് കൃത്യമായിട്ടുള്ള വിളവ് ലഭിക്കാതിരിക്കാൽ ഈ വിളവ് അല്ലെങ്കിൽ പണം ലഭിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടം ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഈ പറയുന്ന കാലാവസ്ഥയ്ക്ക് നൽകാനായിട്ട് സാധിക്കുന്നതാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാണെങ്കിൽ അല്ലെങ്കിൽ കാലാവസ്ഥയ്മായി ബന്ധപ്പെടുത്തിയിണ്ട് പറയാണെങ്കിൽ നമുക്ക് അറിയാം കാലാവസ്ഥകൾ എന്ന് പറയുന്നത് വ്യത്യസ്ത ഋതുക്കളാണ് നമുക്ക് ഉള്ളത് വേനൽക്കാലം മഴക്കാലം ശീതകാലം വസന്തകാലം വസന്തത്തിലാണ് ഈ പറയുന്ന പൂക്കൾ പൂക്കുകയും അതുപോലെ തന്നെ പുതിയ ഇല ഇലകൾ വഴിയൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാ കാലഘട്ടവും അതിൻ്റെ കൃത്യമായിട്ടുള്ള സമയം അതുപോലുള്ള അതിൻ്റെ ആ ഒരു ഘട്ടത്തിലുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളും കൃത്യമായ തോതിൽ നടക്കുന്നില്ല അതു മൂലം എന്ത് സംഭവിക്കുന്നു ഈ പറയുന്ന കാലാവസ്ഥയിലും അല്ലെങ്കിൽ ഈ പറയുന്ന ജനങ്ങളുടെ ജീവിത നിലവാരത്തിലും അല്ലെങ്കിൽ ജനങ്ങളുടെ ആ കൃഷിയിലും അവരുടെ ഉൽപ്പന്നത്തിലും ഉൽപാദന മികവിലും ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരത്തിലും ഒക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പം അതിനെല്ലാം പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കൃത്യമായ സമയത്ത് മഴ ലഭിക്കാതിരിക്കുകയും അല്ലെങ്കിൽ കൃത്യമായ സമയത്ത് ലഭിക്കുന്ന മഴയിൽ ഉണ്ടാകുന്ന തോതിൽ മാറ്റം വരികയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അതിൽ കാലാവസ്ഥയിൽ വരുന്ന അമിതമായിട്ടുള്ള ചൂട് അല്ലേൽ അമിതമായിട്ടുള്ള മഴ അല്ലേൽ അമിതമായിട്ടുള്ള തണുപ്പ് ഇതെല്ലാം കൃഷി വിളകളെ വളരെ ആ എന്താണ് സാരമായി അല്ലാതെ ഒക്കെ ബാധിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് അല്ലെങ്കിൽ കാലഘട്ടത്തിലൂടെ നമ്മൾ ഇന്ന് നടന്നു പോകുന്നത് അല്ലെങ്കിൽ ജീവിച്ചു പോകുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാലാവസ്ഥകളും മറ്റുമാണ് നടക്കുന്നത് നമുക്ക് അറിയാവുന്ന നമുക്ക് ഇന്ന് മഴ പെയ്യുന്ന ആശിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന് മഴ പെയ്യും എന്ന് നമ്മൾ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ മഴ പെയ്യത്തില്ല കാരണം മഴയുടെ സമയാണെങ്കിൽ പോലും മഴ മാറി പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന താവനിലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നമ്മുടെ പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ കാലാവസ്ഥാ ഗവേഷകർ പ്രവചിച്ചിരുന്ന ഇന്ന് മഴ ലഭിക്കും അല്ലെങ്കിൽ മഴ ഇത്ര ശതമാനം പെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യാസമാണ് ഇപ്പം നമുക്ക് ഒരു പ്രവചനം നടത്താൻ പോലും അല്ലെങ്കിൽ കാലാവസ്ഥാ പ്രവചനം പ്രവചനം നടത്തുന്നവർ അല്ലെങ്കിൽ കാലാവസ്ഥ വകുപ്പ് പറയുന്ന രീതിയിലുള്ള മഴയോ അല്ലെങ്കിൽ വെയിലോ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പം പറയുകയാണ് ഓറഞ്ച് അലേർട്ടാണ് അല്ലെങ്കിൽ യെല്ലോ അലെർട്ടാണ് അല്ലെങ്കിൽ എന്താണ് റെഡ് അലാർട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്താണ് സംഭവിക്കുക പക്ഷേ മഴ നമുക്ക് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് കൃത്യമായ രീതിയിലുള്ള മഴ മാറ്റങ്ങൾ അല്ലെങ്കിൽ മുുന്നറിയിപ്പുകൾ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല അതിനുള്ള ഒരു പ്രത്യേക സാചര്യത്തിലാണ് നമ്മൾ ഇന്ന് കടന്ന് പോകുന്നത് ഓക്കെ താങ്ക് യൂ